ആദ്യസമയത്ത് ഞങ്ങൾ കുറച്ച് ഏത്തവാഴ വെച്ചു ആ ഏത്തവാഴ വെച്ച് ഏതായ കുറച്ച് വളർച്ച ആയി കഴിഞ്ഞ് കഴിഞ്ഞ് ഏകദേശം കുലയ്ക്കാൻ പരുവമായപ്പോഴത്തേക്ക് വരൾച്ച അനുഭവപ്പെട്ടതോടുകൂടി ആ കുലയെല്ലാം ഏകദേശം അതിൻ്റെ ഇലകൾ എല്ലാം ഒടിഞ്ഞ് വീണ് അത് നാശോന്മ അത് ഉപയോഗശൂന്യമായിപ്പോയി വളർച്ച ഇല്ലാതെ പോയി അതിനെ ഒന്നും കിട്ടില്ല അത് കഴിഞ്ഞ് അതെല്ലാം വെട്ടി ശരിയാക്കി കപ്പകൃഷി ചെയ്തു കപ്പ കൃഷി ചെയ്ത് ഒരുവിധം കിഴങ്ങുകളൊക്കെ പിടിച്ചു ഏകദേശം അത് ഒരു വിളവിൻ്റെ ആകാറായില്ല അതിന് മുമ്പ് തന്നെ എലിയുടെ ശല്യം സഹിക്കവയ്യാതെ ആ കിഴ എല്ലാ കപ്പേം മാന്തി എല്ലാം കടിച്ച് മാന്തി കഴിച്ച് അതെല്ലാം ഉണ ആ ഇലകളെല്ലാം പൊഴിഞ്ഞ് വീഴുകയും അതിൽ ഇതിൽ സംബന്ധിച്ച് എന്ത് ചെയ്തു അതെല്ലാം പറിച്ച് ഒരുവിധത്തിൽ അതൊന്നും ഒരു പത്ത് പൈസ പോലും കിട്ടാതെ അതെല്ലാം നാശോന്മുഖമായി പോകേണ്ടി വന്നു അതിന് ശേഷം ഞങ്ങൾ അതെല്ലാം നിരത്തിയിട്ട് ഗവൺമെന്റിൽ നിന്നും നമ്മുടെ കൃഷിവകുപ്പ് കൃഷിക്ക് ഉള്ള പൈസ വാങ്ങി കുറേ റബ്ബർ നട്ടു അങ്ങനെ റബ്ബറും നട്ടതോടുകൂടി കുറച്ചൊക്കെ വിജയമായി തൊടങ്ങി കുറച്ചൊക്കെ പൈസ ഗവൺമെന്റിൽ നമുക്ക് സബ്സിഡി ആയി കിട്ടി അത് കുറച്ച് പൈസ അടച്ച് അത് ഒരുവിധം നല്ല രീതി കൊണ്ട് വരാൻ പറ്റി അപ്പം ഓരോ കൃഷികൾക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് അവസാനം പിന്നെ ആ കൃഷിയുടെ എല്ലാം കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് പച്ച കൃഷി പച്ചക്കറി കൃഷിയൊക്കെ നട്ടു പാവലും പ പയറും അതുമെല്ലാം തുടക്കത്തിൽ നല്ല രീതിയിൽ വന്നെങ്കിലും അതിൻ്റെ ആദ്യ ഫലം ഒക്കെ കുറച്ചൊക്കെ എടുക്കാൻ തന്നെ പിന്നീട് വിളകളൊക്കെ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തെന് അപ്പിടി പുഴുവായി ഈച്ചകളും കുത്തി അതെല്ലാം നാശോന്മുഖമായി വലിയ ബെനഫിറ്റ് ഒന്നും വലിയ ഇതൊന്നും കിട്ടാൻ പറ്റിയില്ല എങ്കിലും റബ്ബറിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ ആദായങ്ങൾ കിട്ടി തുടങ്ങി